ജനനശേഷം നവജാത ശിശുക്കൾക്ക് വൃത്തിയുള്ള അന്തരീക്ഷം ഉണ്ടെന്നും വൃത്തിഹീനമായ സാഹചര്യം കാരണം അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും നമ്മൾ ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വമാണത് എന്നു വെച്ചാൽ ജനനശേഷം ഓരോരുത്തരും വിചാരിക്കുന്നത് അമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മകൾ അവർക്കു വേണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ അവരുടെ ആരോഗ്യത്തിനും അവരുടെ ആ ഒരു പ്രസവശേഷമുള്ള ശിശ്രൂഷകളും അതിനാണേറ്റവും കൂടുതൽ ആൾക്കാർ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ വൃത്തി മാത്രമാണ് എന്നു വെച്ചാൽ ഇപ്പൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾ ആയിക്കോട്ടെ ഓരോ കാര്യങ്ങൾ അവരെ എടുക്കുന്ന രീതിയായിക്കോട്ടെ തലയൊന്നും ഉറക്കാത്ത ഈ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടി തലയിൽ കാരെന്താണ് മേത്തൊക്കെ നല്ല ബാലൻസ് കൊടുത്തെടുക്കുവാനും അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ മറ്റൊരു കാര്യമാണ് പാല് കൊടുക്കുന്നത് കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന ഒരു സമയത്ത് അമ്മമാർ വളരെ വൃത്തിയുള്ള ഒരു സമയമായിരിക്കണം എന്നു വെച്ചാൽ അവർ കൈകളൊക്കെ വളരെ വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ അവരുടെ വസ്ത്രങ്ങൾ വൃത്തിയുള്ളതായിരിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതുപോലെ ഈ കുഞ്ഞു കുട്ടികളെ നമുക്കറിയാം ഈ പ്രസവശേഷം കുട്ടികളെ കാണുവാനും ആൾക്കാരൊക്കെ വരും അപ്പോൾ ആ ഒരു സമയത്ത് ഈ വരുന്ന ആൾക്കാർക്ക് അസുഖങ്ങളൊക്കെ ഇല്ലാതിരിക്കുവാനും അവരുടെ വൃത്തി അവർക്ക് നല്ല വൃത്തിയുണ്ടായിരിക്കുവാനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ കുഞ്ഞുകുട്ടികളായതു കൊണ്ട് തന്നെ അവർക്ക് അസുഖങ്ങൾ വരാനുള്ള സാദ്ധ്യതകൾ വളരെ കൂടുതലാണ് അപ്പം പുറത്തു പോകുന്നതും അത് പോലെ ആൾക്കാർ വരുന്നതും നമ്മൾ ചെയ്യുന്നതും കഴിക്കുന്ന ഫുഡും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടു വേണം ചീയ്യാൻ കാരണം ഇതൊക്കെ അവരുടെ ശരീരത്തിനെയും അവരുടെ വളർച്ചയെയും ഒക്കെ ബാധിക്കുന്നുണ്ട് പിന്നെ വൃത്തിഹീനമായ സാഹചര്യം എന്നു വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളുടെ താമസിക്കുന്ന സ്ഥലം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ധ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇതെല്ലാം അസുഖങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് വൃത്തിഹീനമായ ഒരു എന്താണ് സ്ഥലത്ത് നമ്മൾ കിടക്കുമ്പോൾ കുട്ടിക്ക് അസുഖങ്ങൾ വരാനുള്ള സാദ്ധ്യതകൾ കൂടുതലാണ് മറ്റേ നമ്മുടെ പകർച്ച വ്യാധി പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാദ്ധ്യത വളരെ കൂടുതലാണ് ഈ പനി പകർച്ചപ്പനി അതുപോലെ തന്നെ മറ്റസുഖങ്ങൾ പകർച്ച ആ ഒരു സമയത്ത് കുട്ടികളെ പുറത്തിറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നവജാത ശിശുക്കൾ അവരുടെ ഇൻഫക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അവരെ മേത്ത് അവരെ കുളിപ്പിക്കുക ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരമാവധി വരെ അവരുടെ അസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്ക് പറ്റും